ആ ഹലോ പറഞ്ഞോളൂ അതെ ഓക്കെ പേരെന്താണ് ആ ഓക്കെ ഓക്കെ ഓക്കെ എന്തെങ്കിലും പ്രൊജക്റ്റോ അങ്ങനെയെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഓക്കെ എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്ന് നമ്മളെയെല്ലാം കണ്ടു മനസ്സിലാക്കി ചെയ്യാനാണോ അതോ ജസ്റ്റ് ഒരു ബ്രീഫ് പോലെ ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ ഓക്കെ ഓക്കെ ഇപ്പം കേരളത്തിൻ്റെ കൾച്ചറാകുമ്പോൾ നമുക്കറിയാം കേരളത്തിന് പിന്നെന്താണ് തനതായ പലതരത്തിലുള്ള ആർട്സ് ഫോം ഇപ്പം കേരളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആർട്ട് ഫോമായിട്ട് നമുക്കെന്താണ് പറയുക നമുക്ക് കഥകളി ഭരതനാട്യം ചെണ്ട ഇതൊന്നും നമുക്ക് വേറെയെവിടെയും കാണാൻ കഴിയാത്ത ആർട്ട് ഫോംസ് ആണല്ലോ പിന്നെ ആർട്ട് ഫോമിലേക്ക് വരുകയാണെങ്കിൽ ചാക്യാർ കൂത്ത് കേളി തിരുവാതിര അങ്ങനെ ഡിഫറൻറ് ടൈപ്സ് ഓഫ് പല തരത്തിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള ആർട്ട് ഫോംസ് നമുക്കുണ്ട് അപ്പം ആ അതിനെ വേണമെങ്കിൽ അതിപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് നമുക്ക് നെറ്റിൽ നിന്നെടുക്കാമല്ലോ അപ്പം അങ്ങനെയാണ് അതാണ് നമ്മുടെ ആർട്ട് ഫോം വരുമ്പോൾ ഏറ്റവും ആർട്ട് ഫോമിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോമെന്നുപറയുന്നത് നമുക്കറിയാം കഥകളിയാണ് കഥകളിയാണ് നമുക്ക് ഇപ്പം യുനെസ്കോ വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു ആർട്ട് ഫോമാണല്ലൊ അപ്പോൾ കഥകളി പിന്നെ ചാക്ക്യാർകൂത്ത് വള്ളംകളി നമ്മുടെ കേരളത്തിൽ മാത്രം കാണുന്നൊരു ആലപ്പുഴയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് വള്ളംകളി അതുപോലെ ആർട്ട് ഫോംസിന്റെ കാര്യത്തിലേക്ക് വരുന്നു പിന്നെ ഡ്രസ്സിങ്ങിലാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മൂന്നു ടൈപ്പ് എന്താണ് പറയുക ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് ആണല്ലോ അപ്പോൾ ഇവർക്ക് മൂന്നു ആ മൂന്നു മൂന്ന് ക്ലോത്തിങ് സ്റ്റൈൽ ആണ് അപ്പോൾ ഹിന്ദുസിനാണെങ്കിൽ ഹിന്ദു വുമൺസ് നോക്കുകയാണെങ്കിൽ സെറ്റ് സാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാരി അതൊക്കെയാണ് കൂടുതൽ വരുക ആണുങ്ങൾക്ക് മുണ്ട് ഷർട്ട് പിന്നെയിപ്പം ക്രിസ്ത്യൻസിൻ്റെ അടുത്തേക്ക് വരുകയാണെങ്കിൽ എന്താണ് ചട്ടയും മുണ്ടും അങ്ങനെയങ്ങനെ പലകാര്യങ്ങൾ പിന്നെ അവരുടെ തന്നെ ഈ ഈ റിലീജിയൻ്റെ ബേസിൽ വരുന്ന ഇതുണ്ടല്ലോ ആർട്ട് ഫോംസ് ഇപ്പം മുസ്ലിംസിൻ്റെ അടുത്താണെങ്കിൽ എന്താണ് കോൽക്കളി പിന്നെയെന്താണ് നമ്മുടെ ഇതൊക്കെ ദഫ്മുട്ട് ഇങ്ങനത്തെ കുറേ ആർട്ട് ഫോംസ് ഉണ്ട് പിന്നെ ക്രിസ്ത്യൻസിൻ്റെ അടുത്തേക്കാണെങ്കിൽ ചവിട്ടുനാടകം പരിചമുട്ട് അങ്ങനെയങ്ങനെ ആ അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്നു ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുവല്ലോ ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ പിന്നെ വിളിച്ചാൽ മതി ഞാൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് ഡീറ്റൈൽഡ് ആക്കിയിട്ട് പറഞ്ഞു തരാം പ്രശ്നമില്ല ആ ഓ ആയിക്കോട്ടെ